അതെ അതെ അതെ നിങ്ങള് പറഞ്ഞോളൂ ആ കാസർഗോഡ് ബേക്കൽ ഫോർട്ട് ഉണ്ട് അതേപോലെ റാണിപുരം രണ്ട് സ്ഥലങ്ങൾ ആണ് മെയിൻ ആയിട്ട് ഉള്ളത് അവിടെ വലിയ ഒരു കുന്നിൻ്റെ മുകളില് കയറിയാല് കോടമഞ്ഞും സൂര്യനും അത് ഒക്കെ വളരെ മനോഹരായിട്ട് കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ബേക്കൽ ഫോർട്ട് ഭയങ്കര പുരാതനമായിട്ട് ഉള്ള ഒരു കോട്ട ആണ് പണ്ട് ബ്രിട്ടീഷുകാർ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കെട്ടി വെച്ചത് ആണ് നിങ്ങള് എവിടെയാണ് നിങ്ങൾ അബ്രോഡ് ആണോ ഓക്കെ അപ്പം നിങ്ങള് എവിടെ ആണ് നിങ്ങള് വരുന്നത് ഏത് ആ ഓക്കെ ശരി മംഗ്ലൂര് എയർപോർട്ടിൽ വന്ന ശേഷം നിങ്ങള് കാസർഗോഡേക്ക് എത്തിയാൽ മതി അവിടുന്ന് ഞാൻ നിങ്ങളെ പിക്ക് ചെയ്തോളാം ആ രണ്ട് സ്ഥലം ആണ് വളരെ മെയിൻ ആയിട്ട് കുറെ ആൾക്കാര് വരുന്നത് വിദേശികൾ അവിടെ എത്തുന്നുണ്ട് നിങ്ങളെ പോലെ ഏറ്റവും കൂടുതൽ ടൈമ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ബേക്കൽ ഫോർട്ട് തന്നെ ആയിരിക്കും റാണിപുരത്തിനെക്കാളും ഇപ്പം നിങ്ങൾ എപ്പഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി നിങ്ങള് എന്ന് ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ എത്ര ദിവസം ഉണ്ടാകും ഇവിടെ ഓക്കെ അപ്പം നമ്മള് നിങ്ങളുടെ ഫുഡ്ഡും നിങ്ങളുടെ സ്റ്റേയും കൂടി നമ്മള് വളരെ ഓഫറില് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പാക്കേജ് രണ്ട് സ്ഥലം കൂടി വിസിറ്റ് ചെയ്യാൻ രണ്ട് ദിവസം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു

അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കില് ഞങ്ങളെ വീണ്ടും കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ അവൈലബിൾ ആയിരിക്കും